മലയാള ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിനെ മാത്രം ഔദ്യോഗിക ഭാഷയാണ് മലയാളം മലയാളം ഭാഷ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചാരണത്തിലുള്ള ഒരു ഭാഷയായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുകയുണ്ടായി ടോട്ടൽ അഞ്ചു ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുള്ളത് ഇതിൽ നാലാമതായിട്ട് വരുന്നതാണ് മലയാളം പിന്നെ മലയാളം ഭാഷ കേരളം അല്ലാണ്ട് കർണാടക തമിഴ് നാട് പിന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ലക്ഷ്വദീപ് പോണ്ടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ് പിന്നെ മലയാള ഭാഷയിൽ അമ്പത്താറ് അക്ഷരങ്ങളാണ് ഉള്ളത് അതിൽ പന്ത്രണ്ട് പതിനാല് സ്വരാക്ഷരങ്ങളും നാല്പത്തി നാല്പത്തി നാല് നാല്പത്തി രണ്ട് വ്യഞ്ജനാക്ഷരങ്ങളും